നമ്മുടെ അത് ഒരു പി എച്ച് സി ആണ് ഒരു ഒരാൾ അസുഖമില്ലാതെ വന്നിട്ടി അസുഖമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വന്ന വിധം ഒരു നല്ല ഇതില്ല എന്ത് ആംബുലൻസ് ഇല്ല ആംബുലൻസിൻ്റെ ലഭ്യതക്കുറവ് തന്നെയാണ് തന്നെ ഒരു വളരെ ഒരു വലിയ ഒരു പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമാണ് ഈ ആംബുലൻസിൻ്റെ കാര്യം ഇവിടെ ഒരു ആംബുലൻസില്ലായ്മ എന്നുള്ളത് കാരണം ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരാളെ അറിയാതെ കൊണ്ടു പോവാൻ എന്തോ കഷ്ടപ്പെടണം വേറെ വണ്ടി വിളിച്ച് വേറെ വണ്ടി കിട്ടിയില്ലെങ്കിൽ അടുത്ത വണ്ടി വിളിച്ചു അത് കിട്ടിയില്ലെങ്കിൽ വേറെ വണ്ടി വിളിച്ചു അതൊക്കെ ഒരു ഭയങ്കരം ഒരു ടാസ്ക്ക് ആണ് സത്യം പറഞ്ഞാൽ തികച്ചും ആംബുലൻസിൻ്റെ ലഭ്യത കുറവാണ് അവിടെ തീർച്ചയായും കാണാനുള്ളത് രം എന്തായാലും അതിൻ്റെ ഒരു അത് തന്നെയാണ് നമ്മൾ തിരുത്തി പോവേണ്ടത് ഏറ്റവും വലിയ പ്രശ്നം എന്നു പറയുന്നത് ആംബുലൻസ് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം പിന്നെ സ്റ്റാഫ് നേഴ്സിൻ്റെ കുറവുകൾ നഴ്സുമാരുടെ കുറവുകൾ ഡോക്ടർമാർ കൃത്യമായിട്ട് ലീവ് എടുക്കാതെ വരുന്നതിൽ ഡോക്ടേഴ്സിൻ്റെ ലഭ്യത കുറവ് അതൊക്കെ ഒരു ഇവിടെ ഉള്ള ഒരു ഭയങ്കര ശാശ്വത പരിഹാരം കാണേണ്ട ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ആംബുലൻസ് ഡോക്ടർമാർ ഇതൊക്കെ ആവശ്യ സാധനങ്ങളെന്ന പോലത്തെ ഒരു സംഭവങ്ങളാണ് മീൻസ് ആവശ്യമാണ് അവരെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് അതാണ് കൂടുതലായിട്ടും വേണ്ടത്